ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്